തോട്ടക്കൃഷി തുടങ്ങാമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതായത് ഇപ്പോഴത്തെ പച്ചക്കറി വിലകളിലൊക്കെ കൂടുതലായിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് തോട്ടക്കൃഷി തുടങ്ങാനായിട്ട് തുടങ്ങിയത് അതായത് നമുക്കൊരു ഇത് വന്നത് അതായത് ഇപ്പം ഇപ്പം ഇറങ്ങുന്നതെല്ലാം ജൈവ പച്ചക്കറിയെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത് ഫുള്ള് കെമിക്കലാണ് അപ്പം നമ്മൾക്കത് കഴിച്ചു കഴിയുമ്പം നമ്മൾക്കെന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തു ചെയ്യാം നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ വീട്ടു വളപ്പിൾ സ്വന്തം കൃഷി ചെയ്ത് അതിൽ നിന്നൊരെണ്ണം കിട്ടുമ്പം നമ്മൾക്കുണ്ടാവുന്ന സന്തോഷവും നമുക്കത് കഴിക്കുമ്പം ഉണ്ടാവുന്ന സുഖവും വേറൊന്നും കിട്ടില്ല കാരണം പുറമേ നിന്നുള്ള പച്ചക്കറികളൊക്കെ ഫുള്ള് വിഷമടിച്ചിട്ടാണ് വരുന്നത് പക്ഷെ പച്ചക്കറി ഇഷ്ടംപോലെ പുറമേനിന്ന് വരുന്നതാണെങ്കിലും നമ്മുടെ പച്ചക്കറീൻ്റെ ഒരു സ്വാദും ഇതൊന്നും പുറമേയുള്ള പച്ചക്കറിക്ക് കിട്ടില്ല കാരണം അത് ഫുള്ള് കെമിക്കലടിച്ച് അങ്ങനെയാക്കി എന്താ പറയുക വൃത്തിയായി വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് വരുന്നതാണ് ഈ പുറമേയുള്ള പച്ചക്കറികളൊക്കെ അപ്പം അതിലും നല്ലത് നമ്മളിവിടെ നമ്മുടെ എന്താ പറയുക ചാണാനും അങ്ങനത്തെ എന്താ പറയുക ഈ നമ്മുടെ ഇവിടെ കിട്ടുന്നപോലത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പൊങ്ങി വരുന്ന ഓരോ പച്ചക്കറികളിലും തിന്നാൻ നമ്മൾക്ക് തന്നെ നല്ലൊരു സുഖമാണ് ജൈവ പച്ചക്കറിയെന്നാണ് പറയുക അപ്പം അതൊക്കെ കഴിക്കുമ്പം നമ്മളെ വയറ്റിനും പ്രശ്നമില്ല ആ അത് കഴിക്കുമ്പം നമ്മൾക്കൊരു മനഃസുഖവും കിട്ടും അതൊക്കെക്കൊണ്ടാണ് പിന്നെ പച്ചക്കറികളുടെ വിലയും വിലയും ഭയങ്കര കൂടുതലാണ് ഇപ്പം തക്കാളിക്കെന്ന് പറഞ്ഞാൽ നൂറു രൂപേൻ്റെ മുകളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് തക്കാളിക്ക് പച്ചക്കറികൾക്ക് ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് പച്ചക്കറീൻ്റെ വില അപ്പോഴതുകൊണ്ടാണ് ഞാനെന്തു ചെയ്തത് ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ തോട്ടം കൃഷി പോലെ അങ്ങനെ ചെയ്ത് അപ്പം നമ്മുടെ സ്വന്തം പച്ചക്കറിയിൽ നമുക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാം അതുകൊണ്ടാണ് ഞാനങ്ങനെ തോട്ടമൊക്കെ തോട്ടപ്പച്ചക്കറിയിലേക്ക് കൃഷിയിലേക്ക് ഞാനിങ്ങനെ പോയത്